ആ അതെ ചെണ്ടുമല്ലിയുണ്ട് വാടാമല്ലിയുണ്ട് ജമന്തിയുണ്ട് അരളിയുണ്ട് തെച്ചിയുണ്ട് റോസുണ്ട് താമരയുണ്ട് അരളിയുണ്ട് ഇതൊക്കെ ഫ്രഷ് പൂവാണ് ഒക്കെ ഇന്നുവന്ന ഫ്രഷ് പൂവാണ് ഇന്ന് വന്നതേ ഉള്ളു എല്ലാം ഫ്രഷ് പൂവാണ്

താമരയോ താമര കിലോ അല്ല താമര റേറ്റ് ഒരെണ്ണത്തിന് അമ്പത്തഞ്ച് രൂപയാണ് താമര ഓരോ വൺ ബൈ വൺ ആണ് ആ താമര ഓരോന്നാണ് ബാക്കിയെല്ലാം കിലോ ആണ് താമര അതുപോല റോസും റോസും നമുക്ക് വൺ ബൈ റേറ്റാണ് ഓരോന്നിന് ഓരോ വിലയാണ് താമര ഇരുപത് രൂപ വരും ആ ചെറിയ റോസുണ്ട് അത് കിലോ നൂറ്റമ്പത് രൂപയാണ് വലിയ പൂക്കളോ ആ ഓക്കേ ആ നമുക്ക് ആ നമുക്ക് ചെയ്ത് തരാം പോലെ ചെയ്ത് തരാം നിങ്ങള് വാങ്ങുന്ന പൂവിനനുസരിച്ചു നമ്മള് റേറ്റിട്ട് തരാം ഇല്ലില്ല ഒക്കെ നല്ല പൂവാണ് ഫ്രഷ് പൂവാണ് നമ്മടെ ചെണ്ടുമല്ലി ഉണ്ട് ഇന്ന് വന്ന ഫ്രഷ് പൂവാണ് എല്ലാം ഏതൊക്കെ പൂവാണ് വേണ്ടത് പത്തുകിലോ ആ ഓക്കേ പിന്നെ കിലോ മുന്നൂറ്റി എമ്പത്തഞ്ച് ആ

ചെണ്ടുമല്ലി കിലോ ഇരുന്നൂറ് രൂപയാണ് ആ ചെണ്ടുമല്ലി സെയിം റേറ്റാണ് ആ രണ്ടിനും മഞ്ഞയും ചുവപ്പും ഇരുന്നൂറ് രൂപയാണെ കിലോ

പിന്നെ വാടാമല്ലി വേണോ ഒരുകിലോ മതിയല്ലേ വാടാമല്ലി വിലക്കുറവാണ് നൂറു രൂപയേ ഉള്ളു കിലോന് ആ നൂറു രൂപയേ വരുള്ളൂ സാധാരണ ഇപ്രാവശ്യം ഭയങ്കര കുറവാണ് അതാണ് കഴിഞ്ഞേന നൂറ്റമ്പതുരൂപയൊക്കെ ആയിരുന്നു അഞ്ച് കിലോ ഓക്കേ താമര രണ്ടെണ്ണം മതിയോ നാല് സൈഡിലും വെക്കാൻ വേണ്ടേ നാലെണ്ണം വേണ്ടേ അത് പഴയ താമര അല്ല ഇത് പുതിയ താമരയാണ് ഇതിനും അല്ല അല്ല ഈ താമരയൊക്കെ ഒരാഴ്ചയൊക്കെ വാടാണ്ടിരിക്കും രണ്ടെണ്ണം മതിയല്ലേ ഇത് പത്തുരൂപ ആ വേറെന്താണ് വേണ്ടത് തെച്ചിയുണ്ട് അരളി വേണ്ടേ വെള്ളയുണ്ട് റോസുണ്ട് ആ വെള്ളയുണ്ട് റോസുണ്ട് ഏതാ വേണ്ടത് എത്ര കിലോ വേണം റോസുമതി അരളിപ്പൂ നൂറ്റമ്പത് രൂപയാണ് കിലോയെ അരളി ഭയങ്കര റേറ്റ് ആണ് ആ അരുളി നമുക്ക് ഭയങ്കര റെയറ് സാധനമാണ് കിട്ടാൻ ഇല്ല എല്ലാവരും ചോദിക്കണ സാധനമാണ് അത് വളരെ കുറച്ച് മാത്രേ കിട്ടുന്നുള്ളൂ ഇപ്പോൾ കഴിയാനായി രണ്ട് മതീലോ അല്ലെ പത്തുകിലോ വെള്ളയും പത്തുകിലോ റോസും പിന്നെന്താ വേണ്ടത് തെച്ചി വേണ്ടെ ആ ചെറിയ റോസാപ്പൂ ഉണ്ട് അഞ്ച് കിലോ ചെറിയ റോസാപ്പൂ അഞ്ച് കിലോ അത് കിലോ എമ്പത് രൂപ ഏഴു കിലോ ആ വേറെന്താണ് വേണ്ടത് ആഹ് ഇതിപ്പോൾ എല്ലാം കൂടി ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപയായിട്ടുണ്ട് നമ്മള് ഒരു നൂറുരൂപ കമ്മിയാക്കി തരാം ഓ നമുക്ക് പൂവിനൊക്കെയിപ്പോൾ ഭയങ്കര ഡിമാൻഡാണ് കിട്ടാനൊന്നും ഇപ്പോൾ ഇല്ല അരളിയൊക്കെ ഭയങ്കര റെയറ് സാധനമാണ് അരളിയൊന്നും മാർക്കെറ്റില് കിട്ടാനില്ലാത്ത സാധനമാണ് അരളിയൊക്കെ നമുക്ക് ഒന്നും കമ്മിയാക്കാൻ പറ്റില്ല പിന്നെ ചെമ്പരത്തിയുണ്ട് ചെമ്പരത്തി വേണോ ഏതാ പിച്ചകമോ പിച്ചകം ഇല്ല നന്ദ്യാർവട്ടം ഉണ്ട് ആഹ് ആ പിന്നെ കാശിതുമ്പയുണ്ട് നാടൻ പൂവാണ് നല്ല ആ ഇപ്പോൾ ഇവിടെ നമുക്ക് ജെണ്ടുമല്ലിയും ജമന്തി വാടാമല്ലി ഇതൊക്കെ ഉള്ളു റോസ് രണ്ടുണ്ട് മഞ്ഞയുണ്ട് വെള്ളയുണ്ട് ജമന്തി അത് വില കുറവാണ് എഴുപത് രൂപയെ ഉള്ളു കിലോന് ആ ശരി അഞ്ച് കിലോ അല്ലെ ചെറിയ റോസാപ്പൂ വലിയ റോസാപ്പൂവോ ആ വലുതുണ്ട് അത് ഒരു റോസാപ്പൂവിന് ഇരുപതു രൂപയാണ്

അഞ്ചെണ്ണം മതിയോ എല്ലാവർക്കും ഓരോന്ന് തലയിൽ വെക്കാൻ വേണ്ടേ ആ ഓക്കേ അഞ്ചെണ്ണം അല്ലെ മുല്ല മുല്ലപ്പൂ വേണ്ടേ ആ ശരി ഇത് മതി അല്ലെ